ഈ പെണ്ണുങ്ങളോടുള്ള ആണുങ്ങൾടെ സമീപനം എപ്പോഴും ശരിയായിട്ടല്ല വളരെ മോശായിട്ട് ബിഹേവ് ചെയ്യുന്നവരുണ്ടാവും അവർക്ക് എന്താ പറയ അവരുടെ അപ്പ്രോച്ചിങ്ങിത്തന്നെ തെറ്റായിരിക്കും അവരുടെ നോട്ടം പെരുമാറ്റം അവരുടെ സംസാരശൈലി അതിലക്കൊരു ഭയങ്കര ഭയങ്കര വൃത്തിക്കെട്ട രീതിയിൽ വരെ സംസാരിക്കുന്നവരുണ്ടാവും ഇപ്പം ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായം പറയാം ഞാൻ ഒരു ഷോപ്പിനിന്നു അവരുടെ ഒരു കാക്കേൻ്റെ ആയിരുന്നു എന്താ പറയാ നമുക്ക് എല്ലാവർക്കും എല്ലാരടുത്തും ഉള്ള അപ്പ്രോച്ചിങ് അവരുടെ സ്വഭാവം ഭാ അവരുടെ പെരുമാറ്റം ഒന്നും ശരിയുള്ള തരത്തിലല്ല കാരണം ഏജ്ട് ആയിട്ടുള്ള ഒരാളായിരുന്നു പക്ഷേ അവരുടെ ബിഹേവിങ് നമുക്ക് ഭയങ്കര മോശാട്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അങ്ങനുള്ള ബിഹേവ് ചെയ്യുന്നോരടുത്ത് നമ്മൾ അവർ ചിരിച്ച് നമ്മൾടടുത്ത് അങ്ങനത്തെ ഒരു ഇതിലാ വർത്താനം പറയുന്നതെങ്കിൽ നമ്മൾ അതേപോലെ വർത്താനം പറഞ്ഞാലാണ് അവർ നമ്മൾ കുറച്ചും കൂടെ അവർ നമ്മൾടടുത്ത് അങ്ങനെ ഒരു അപ്പ്രോച്ചിങ് കുറച്ച് കൂടുതൽ നടത്തൊള്ളൂ ആ സമയത്ത് സ്ട്രിക്ട് ആയിട്ട് പറയേണ്ട സ്ഥലത്ത് നമ്മൾ പെണ്ണുങ്ങൾ പറയേണ്ടടത്ത് പറയ പല സന്ദർഭങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മൾ അവർക്ക് ഒത്ത് പോവാൻ പറ്റില്ല അവരടെ മോശായിട്ടുള്ള കാര്യമാണെങ്കിൽ തിരിച്ച് പ്രതികരിക്കണം പ്രതികരിക്കാതിരിക്കമ്പാണ് പല പ്രശ്നങ്ങളും ഉണ്ടാവുക ശക്തമായിട്ട് അതിനെ പ്രതികരിക്കണം ഇപ്പോൾ ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും തെറ്റവർ പറയുന്നതെങ്കിൽ അത് ശരിയാക്കാൻ നോക്കുക അല്ലാതവരടെ രീതിയിലുള്ള തെറ്റാണെങ്കിൽ നമ്മൾ ചൂണ്ടി കാണിക്കുക അങ്ങനെ സംസാരിക്കരുത് എൻ്റെടുത്ത് എനിക്ക് അങ്ങനത്തെ പറയാൻ താൽപര്യമില്ല എന്ന് പറയണം അല്ലെങ്കിൽ അവിടെ നമുക്ക് നിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഇറങ്ങുക അല്ലെങ്കിൽ അതിനേക്കാളും മേലുള്ള ആൾക്കാരോട് ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്ക ഇങ്ങനെക്കൊരു സംഭവം ഉണ്ടെന്ന്ള്ളത് അവിടെ പിടിച്ച് തൂങ്ങി നിന്നിട്ട് കാര്യമില്ല പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കന്നെ ചെയ്യണം